അഞ്ച് അഞ്ച് രണ്ടായിരത്തി പത്ത് ആറ് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് എട്ട് എട്ട് രണ്ടായിരത്തി പതിമൂന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി പതിനാറ്